ജോലി സ്ഥലത്തു കുറേ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് ഞാൻ ഈ ഫോട്ടോഗ്രാഫി വർക്കിനാണ് പോയ്കൊണ്ടിരുന്നത് അതിലൊരു വെല്ലുവിളി എന്തെന്നു വെച്ചാൽ ഒരു വിവാഹത്തിനു പോയിട്ട് നമ്മളു വിവാഹത്തിൻ്റെ ചടങ്ങിൻ്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ക്യാമറയുടെ ചാർജ് ബാറ്ററി ലോ ആവുകയും അത് ഓഫാകുകയും ചെയ്തതാണ് ഒരു വെല്ലുവിളി പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി കാരണം ഈ ചടങ്ങുകള് നമുക്ക് കൃത്യമായി പകർത്തുന്നതാണ് നമ്മുടെ ജോലി അത് കിട്ടിയില്ലെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ പകർത്തുന്നതിനിടയ്ക്ക് ബാറ്ററിയോ ബാറ്ററി ഓഫായി കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് അത് വളരെ വെല്ലുവിളി നിറഞ്ഞൊരു വെല്ലുവിളി നിറഞ്ഞൊരു ഘട്ടമായിരുന്നു പിന്നെ ഞാന് എങ്ങനെയാണെന്നു വെച്ചാൽ അതിജീവിച്ചത് എങ്ങനെയാണെന്നു വെച്ചാൽ പെട്ടെന്ന് ഒരു സ്പെയറായിട്ടുള്ള ബാറ്ററി എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്നു ആ ബാറ്ററി വച്ചിട്ടാണ് ബാറ്ററി പെട്ടെന്നുതന്നെ ഞാൻ ക്യാമറയിൽ ഇടുകയും അത് വച്ചു ബാക്കിയുള്ള ഫോട്ടോസ് എടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ വെല്ലുവിളി ഞാൻ അതിജീവിച്ചത്